നമ്മുടെ നാടിന്റെതായ കലകളെന്ന് പറയുന്നത് ഭരതനാട്ട്യം കുച്ചിപ്പൊടി മോഹിനിയാട്ടം തെയ്യം കുറേ കോലൻ തുള്ളൽ അങ്ങനെയുളള കലകളാണുള്ളത് അത് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് കാരണം ഇപ്പോഴത്തെ തലമുറയെല്ലാം ഇത് മൊബൈൽനും ഒക്കെ സോഷ്യൽ മീഡിയക്ക് അഡിക്ട് ആയത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ആരുമൊരു അറിയാൻ കൂടുതൽ ആഗ്രഹിക്കുന്നില്ല അത്കൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കലകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടും സംരക്ഷിക്കേണ്ടതായിട്ടുമുണ്ട് അതിനാവശ്യമായ പ്രോത്സാഹനം കുട്ടികൾക്കൊക്കെ നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ കൊടുക്കേണ്ടതാണ്